ഹലോ തോമാച്ച ഞാൻ ജിജിയാണെ ഞാൻ ജിജിയാണെ പിന്നെ ഞാൻ വിളിച്ചത് എന്റെ മോൻ അമലിന്റെ കല്ല്യാണമാണ് അവന്റെ കല്ല്യാണവുമായി ബന്ധപ്പെട്ടെ നമുക്ക് കുറച്ച് പച്ചക്കറി അത്യാവശ്യമുണ്ടായിരുന്നു നല്ല പച്ചക്കറി വേണെ നല്ല ഏത്തയ്ക്ക വേണം അതേപോലെ തന്നെ മുരിങ്ങയ്ക്ക മത്തങ്ങ അങ്ങനെ ഈ ഒരു നല്ല അവിയലും സാമ്പാറുമൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ല കുറച്ച് പച്ചക്കറികൾ വരുന്നതിന്റെ പിന്നത്തെ ബുധനാഴ്ച്ചയാണെ ഒരു നാന്നൂറ് പേർക്ക് കൊടുക്കത്തക്ക രീതിയിലേക്കുള്ള ഒരു പച്ചക്കറികളാണ് നമുക്ക് വേണ്ടത് നല്ല പാചകക്കാരനെ വിളിച്ചിട്ടുണ്ട് അയാളുടെയിൽനിന്ന് ഞാൻ ലിസ്റ്റ് വാങ്ങിച്ച് അപ്പം എന്നോട് നല്ലൊരു പച്ചക്കറിക്കാരനെ കണ്ടെത്തിക്കാനുള്ളതാണ് പറഞ്ഞേക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ഒരു സുഹൃത്ത് പുള്ളിക്കാരൻ ഒരുപാട് പച്ചക്കറികൾ കൃഷി ചെയ്യുന്ന ഒരു തോട്ടമുണ്ട് അവിടുന്ന് വാങ്ങി എടുക്കാം എന്നാണ് പറഞ്ഞത് അപ്പം പുള്ളി എന്നോട് പറഞ്ഞത് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ലിസ്റ്റ് അടുത്ത ദിവസം തരാം എനിക്ക് വലിയ നല്ല ലാഭകരമായി കിട്ടുമെന്ന് ഞാൻ അപ്പം മറ്റേ പാചകക്കാരനോട് പറഞ്ഞിട്ടുണ്ട് അപ്പം പുള്ളി എന്നോട് പറഞ്ഞ് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ലിസ്റ്റ് ലിസ്റ്റ് തന്നോളു ഉടനെ തന്നെ നമുക്കത് മേടിക്കാം എന്നുള്ള രീതിയിലേക്കാണ് പോയത് അപ്പം ഞാൻ അഡ്വാൻസ് ആയിട്ട് ചെയ്തോ എന്ന് പറയുകയായിരുന്നു എനിക്ക് പച്ചക്കറി വേണം എന്നെ അപ്പം ഒന്ന് ക്രമീകരിച്ച് വെക്കണം ആ ഓക്കെ ആ ഓക്കെ എന്നാൽ ഓക്കെ ഓക്കെ ഓക്കെ ശരി ഞാൻ എന്നാൽ ഞാനെന്റെ ആ ഒരു ഏന ഞാനെന്റെ ആ നമ്മുടെ ആ എന്നാൽ മറ്റേ ഏന പണി ചെയ്യുന്ന ആളിന്നോട് വിളിച്ച് പറഞ്ഞിട്ടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കിക്കൊണ്ട് വരുന്നതിനെക്കുറിച്ച് ഞാൻ പറയാം കേട്ടോ പിന്നെ എന്നാ ഉണ്ടെ ഏത്തക്കൊല ഏത്തക്കൊല വെട്ടാറായോ ഏത്തക്കൊല വെട്ടാറായോ ആ അതെ അതെ എനിക്കെ കുറച്ച് ശർക്കരവരട്ടിയും ഏത്തയ്ക്ക ഉപ്പേരി ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടീട്ട അതേപോലെ തന്നെ മത്തങ്ങായും കുമ്പളങ്ങായും ഒക്കെ ഉണ്ടോ മത്തങ്ങായും കുമ്പളങ്ങായും ഒക്കെ ഉണ്ടോ ആ ആ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ശരി ആയിക്കോട്ടെ തമിഴ്നാട്ടിൽനിന്നുള്ള പച്ചക്കറികളൊന്നും വേണ്ടെ നമ്മുടെ നാടൻ പച്ചക്കറികൾ മതി കേട്ടോ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ശരി ആയിക്കോട്ടെ ഓക്കെ ഓക്കെ ഞാൻ നോക്കട്ടെ ഞാനാ മറ്റേ പാചകക്കാക്കാരനെ ഒന്നുകൂടെ ഒന്ന് വിളിച്ച് നോക്കട്ടെ കേട്ടോ ഓക്കെ താങ്ക് യു ശരി ആ ഓക്കെ എന്നാൽ ഓക്കെ ഓക്കെ ശരി ആയിക്കോട്ടെ ഓക്കെ എന്നാൽ